എന്റെ കൈയില് തലമുറകളായിട്ട് എനിക്ക് കിട്ടിയ കുറേ പാചക വിദ്യകളുണ്ട് അതിലെന്റെ അമ്മൂമ്മേടടുത്തുനിന്നായാലും അമ്മേടടുത്തൂന്നായ്ന്നെനിക്ക് ഞാന് കണ്ടുപഠിച്ചത് എന്നാല് പിന്നെ പലതരം പാചകങ്ങളുണ്ട് അതിലൊന്ന് പറഞ്ഞാല് സദ്യയാണ് അതില് നമുക്ക് സാമ്പാറ് ഉണ്ടാക്കുന്നത് പറഞ്ഞാല് അതിലേക്ക് വേണ്ട കഷ്ണങ്ങളെന്നു പറഞ്ഞാല് ഞാനെടുക്കുന്നത് വലിയ ഉള്ളി ഉരുളക്കിഴങ്ങ് കേരറ്റ് ബീറ്റ്റൂട്ട് കയ്പങ്ങ മുരിങ്ങാക്കായ പരിപ്പ് പിന്നതുപോലെ തന്നെ ചെറിയ ഉള്ളി എടുക്കും പിന്നെ ഇങ്ങനെല്ലാതുങ്കൂടി ഇട്ടിട്ട് അത് ആദ്യം പരിപ്പടുപ്പത്ത് വെച്ചിട്ടത് വേവിച്ചിട്ട് പിന്നെ അതിലേക്ക് ഈ മറ്റുള്ള കഷ്ണങ്ങളെല്ലാതുവിട്ട് പിന്നേ മല്ലിപ്പൊടിയിടും മുളകുപൊടി ഇടും മഞ്ഞപ്പൊടി ഇടും എന്നിട്ട് അത് നല്ലോണം വെന്തേന് ശേഷം അതിലേക്ക് കുറച്ചുപ്പിട്ടിട്ട് പിന്നെ വെണ്ടയ്ക്ക തക്കാളി ഇതും ചേർക്കും പിന്നെന്നെയ്ന് ശേഷം അതിലേക്ക് നാളികേരം നാളികേരം വറക്കും നാളികേരം വറത്തെടുക്കാൻ അതിലേക്ക് ചേർക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഉലുവ ഉഴുന്ന് കറിവേപ്പില ഇതെല്ലാങ്കൂടെ ഇട്ടിട്ട് നല്ലൊരു ചീനച്ചട്ടിയിലിട്ടിട്ട് വറുത്തെടുത്ത് കോരി അരച്ചിട്ട് ഇതില് ചേർക്കും കുറച്ച് പുളിയുമൊഴിക്കും കായം വറുത്തു പൊടിച്ചത് അതും ചേര്ത്തിട്ട് പിന്നെ സാമ്പാര്പ്പൊടിയിട്ട് തിളപ്പിച്ചിട്ടെടുത്ത് അങ്ങനെ സാമ്പാര് ഉണ്ടാക്കൂന്ന് അങ്ങനുണ്ടാക്കും സാമ്പാറ് പിന്നതുപോലെ തന്നെയണ് അച്ചമ്മേടടുത്തൂന്ന് പഠിച്ചതാണ് ഈ സേമിയോ പായസം ഉണ്ടാക്കുന്നത് അതിലേക്ക് വേണ്ടത് പറഞ്ഞാല് പാല് അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലവണ്ണം കുറുകി വരുന്നത് തിളച്ചതിനുശേഷം സേമിയ വറുത്ത് ആ തിളച്ച പാലിലേക്കിട്ടിട്ട് അത് വേവുന്നതുവരേ തുടരേ ഇളക്കിയിളക്കി കൊടുക്കുക അത് വെന്തതിനുശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ടു കൊടുക്കും പഞ്ചസാര ഇട്ട് അതും നല്ലോണം അതിലേറ്റ് യോജിച്ചതിന് ശേഷം പിന്നെ മറ്റ് രണ്ട് ചേരുവകളായ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചതിനുശേഷം ഇറക്കി വെച്ചിട്ട് ഒരു വറവും ഒന്ന് വറുത്തെടുക്കും